ആ അതെ മെയ്തീൻ ആണ് ആ ആ ആ ഓക്കെ എന്താണ് എന്തെങ്കിലും ഫംഗ്ഷൻ്റെ പരിപാടിക്കാണോ

ഓ ഓക്കെ നിങ്ങൾക്ക് എങ്ങനത്തെ നിങ്ങൾ ഇവിടെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ലേശം ഒരു ലിറ്റർ കൊണ്ട് നമുക്ക് എൺപത്തേഴ് സ്ക്വയർ ഫീറ്റ് അടിക്കാം എന്നാൽ അങ്ങനെ എങ്കിൽ ഒരു എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നിങ്ങൾ പറഞ്ഞത് ആ നൂറ് ആ അത് മതി ആ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പെയിൻറ് ആണ് അത്യാവശ്യം ഹൈ ക്വാളിറ്റി പെയിൻറ് ആണോ വേണ്ടത് അതോ ഇപ്പോൾ ഇങ്ങളെ വീട്ടിലിപ്പോൾ അടിച്ചിരിക്കുന്നത് പെയിൻറ് ഇപ്പോൾ ഏതാണ് ആ ശരി അടിച്ചതല്ലേ നിങ്ങൾക്ക് ലോക്കൽ പെയിൻറ് അടിച്ചല്ലേ ഓക്കെ നമുക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി പെയിൻറ് അടിക്കാം അല്ലേ

ആ ഏഷ്യൻ നമുക്ക് ഏഷ്യൻ പെയിൻറ് അടിക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഒരു പെയിൻറ് ആണ് നല്ല കറ ഒന്നും പിടിക്കാത്ത നല്ല അതിന് അത്യാവശ്യം റേറ്റ് ഒക്കെ വരും കാരണം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി സാധനം ആണ് അത് നമ്മൾ അടിച്ചാൽ അല്ല അത്യാവശ്യം കുഴപ്പമില്ല ഇതൊരു ഇതൊരു ആവറേജ് റേഞ്ച് ഉള്ള അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന രീതിക്കുള്ള ആ പെയിൻറിനൊരു അടിച്ചാൽ നല്ല ഭംഗിയിൽ നിൽക്കും ആ ഓക്കെ നമുക്ക് ഒരു ദിവസം എന്നാൽ വീട്ടിലേക്ക് വന്ന് സംസാരിക്കാം എന്നാൽ ഏ ആ കാർഡും കൊണ്ട് വരാം ഏതാണ് കളർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്യാം പെയിൻറ് അടിക്കാൻ ഏകദേശം ഒരു ഒരു മാസം ഒക്കെ ആകും ഒരു മാസം കൊണ്ടൊക്കെയേ ആവുള്ളൂ ആ എന്നാൽ നമുക്ക് ഒരു ദിവസം എന്നാൽ അങ്ങനെ കണ്ട് സംസാരിക്കാം കേട്ടോ ആ നാ എന്നാൽ നാളെ തന്നെ വരാം